ട്രാവൽ ഏജൻസി അല്ലേ രാജൂസ് ട്രാവൽ ഏജൻസി അതേ എനിക്കും എൻ്റെ കുടുബത്തിനുമേ മൂന്നാർ വരെയൊന്ന് പോകണമായിരുന്നു അത് ഒരഞ്ചു ദിവസത്തെ യാത്രയാണ് ഞങ്ങളിപ്പം പരിപാടി ഇടുന്നത് അപ്പം ഞങ്ങൾക്ക് അതിനു പറ്റിയ ഒരു കാറ് അറേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ എന്താണ് നിങ്ങൾ അത് ഇന്നോവ മതി അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ ചാർജ് ഓഹ് അത്ര ആകുമോ കിലോമീറ്ററിന് അപ്പം എത്ര വച്ചാണ് അതുശരി അറുപതോ ആ അതിച്ചിരി കൂടുതലൽ അല്ലേ ഒന്ന് അല്പം കുറയ്ക്കാൻ ഒക്കുമോ ആ അത് സാരമില്ല കുറവില്ല ഞാൻ വിളിക്കാം കേട്ടോ